ഹലോ ആ ഓക്കേ ഇവിടെ എല്ലാത്തരം ആ എല്ലാത്തരം ഫ്രെഷ് ആയിട്ടുള്ള പഴവർഗ്ഗങ്ങൾ ഉണ്ട് ഏതായിരുന്നു മാമിന് വേണ്ടത് ആ ഏത് മാങ്ങ ആണ് അതായത് കിളിച്ചുണ്ടൻ തത്ത ചുണ്ടൻ അതിൽ ഏത് ടൈപ്പാണ് വേണ്ടത് അച്ചാർ ഇടാൻ ആണെങ്കില് കിളിച്ചുണ്ടൻ മാങ്ങയായിരിക്കും ഏറ്റവും നല്ലത് ആ ഓക്കേ ഇത് ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത് രൂപ ആണ് കുഴപ്പമില്ലല്ലോ ഒരു കിലോ മതിയല്ലൊ ആ ഒക്കെ വേറെ എന്തായിരുന്നു വേണ്ടത് ജാക്ക്ഫ്രൂട്ട് ആ ഇവിടെ പക്ഷേ ചക്ക അങ്ങനെ മുറിച്ച് തരില്ല കേട്ടോ അത് കുഴപ്പമില്ലല്ലോ ഇല്ല ഇല്ല ഇവിടെ ചക്ക അങ്ങനെ മുറിച്ച് കൊടുക്കാറില്ല ഇവിടെ ഒന്നാമത് ചക്ക ആണെങ്കിൽ സീസൺ അല്ല ആ കിലോ കണക്കാണ് ഒരു കിലോയ്ക്കായിട്ട് അൻമ്പത്തി നാലു രൂപ ആണ് വരുന്നത് ഒരു കിലോ കറക്റ്റ് വരുന്ന ചക്ക കിട്ടാൻ ചാൻസ് ഇല്ല വലിയ ചക്ക ആണെന്ന് ഉണ്ടെങ്കിൽ എങ്ങനെ അത് ചെറുത് വേണോ ഇടത്തരം വേണോ എങ്ങനെയുള്ളതാണ് വേണ്ടത് മാമിന് ആ ഓക്കേ അത് അപ്പോൾ നമുക്ക് നോക്കാം വെയ്റ്റ് നോക്കാം ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഒരു മൂന്നര കിലോയുടെ അടുത്ത് ഉണ്ട് അത് എടുക്കാമോ ആ ഒക്കെ ഒക്കെ വേറെ എന്താണ് മാംമിന് വേണ്ടത് പപ്പായ ആ ഒത്തിരി പഴുകാത്ത ആ ഓക്കേ ഇവിടെ ഉണ്ട് പപ്പായ ഒരു കിലോ മതിയാകുമോ

മാങ്ങയും മാത്രം മതിയോ ഏത്ത പഴം ആണോ ആ ഓക്കേ എ ഏത്തയ്ക്ക പൊരിക്കാൻ വെല്ലതും ആണോ ആ അതിനാണെങ്കിൽ ഇത്രയും പഴുപ്പ് ഉള്ളതായിരിക്കും നല്ലത് അപ്പോൾ ഇത് എടുക്കാമല്ലോ ഒരു കിലോ ആണോ വേണ്ടത് അതോ രണ്ടു കിലോ എടുക്കണോ ആ ഓക്കേ ശരി അപ്പോൾ ഇത്രയും മതിയോ ആ ഓക്കേ അപ്പോൾ ബില്ല് ചെയ്യാവേ ആ ശരി താങ്ക്യൂ